കൂടുതൽ ആളുകൾക്കായി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരനുഭവം ഞങ്ങൾക്ക് പങ്ക് വയ്ക്കാനുണ്ട് ഞങ്ങളുടെ അനുഭവം എന്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു മുന്നൂറ് പേർക്ക് വേണ്ടി ഒരു ബിരിയാണി തയാറാക്കാനുള്ള ഒരു ഭക്ഷണ പരിപാടി ഉണ്ടായിരുന്നു അതിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മുടെ ബിരിയാണി വയ്ക്കുന്ന ഉസ്താദ് അല്ലെങ്കിൽ പ്രമുഖ പാചകക്കാരനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എല്ലാം തയ്യാറാക്കി ബിരിയാണി വേവാൻ അത് പാകമായി കിട്ടാൻ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരുമല്ലോ എന്ന് കരുതി ഞങ്ങൾ അപ്പുറത്ത് പാചകക്കാരും കുറച്ച് ആളുകളും കൂടി തമ്മിൽ സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ സൊറകളൊക്കെ പറഞ്ഞ് ആ നർമ്മ സല്ലാപത്തിൽ കുറച്ച് കൂടുതൽ സമയം പോയ കാരണത്താൽ ബിരിയാണി ഭാഗത്തേക്ക് വരുവാനും കഴിഞ്ഞില്ല ബിരിയാണി കരിഞ്ഞ് മണക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു ആ ബിരിയാണിയാണ് കരിയുന്നത് എന്ന് മനസ്സിലാക്കിയപ്പം എന്ത് ചെയ്തു നമ്മുടെ ഉസ്താദ് അതായത് പ്രമുഖ പാചകക്കാരൻ നേരെ കിണറ്റിലോട്ടൊരു ചാട്ടം അദ്ദേഹം തൻ്റെ ഭാഗം രക്ഷിക്കുന്നതിന് വേണ്ടി അതായത് അദ്ദേഹം മോശമാവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം നേരെ കിണറ്റിലോട്ട് ചാടി അപ്പം എല്ലാവരും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി കിണറ്റിലോട്ട് വേറെയും ആൾക്കാർ ചാടി അപ്പോൾ അദ്ദേഹം പറഞ്ഞു കിണറ്റിൽനിന്ന് എന്നെ നോക്കേണ്ട നിങ്ങൾ നിങ്ങൾ ബിരിയാണിച്ചെമ്പ് നോക്കി അതാണാ കരിഞ്ഞ് മണക്കുന്നത് ബിരിയാണി പോയാൽ നമ്മളുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ ബിരിയാണിക്കല്ലല്ലോ പ്രാധാന്യം നമ്മുടെ ഉസ്താദിനെ രക്ഷിക്കുകയാണല്ലോ നമുക്ക് വേണ്ടത് അങ്ങനെ എല്ലാരുംകൂടി ഉസ്താദിനെ രക്ഷിച്ച് പോന്നു പക്ഷേ ബിരിയാണി കരിഞ്ഞ് പോയത് നമുക്ക് ഭയങ്കര സങ്കടമായിട്ട് ആ ഒരനുഭവം മറക്കാൻ കഴിയാത്തൊരനുഭവമാണ് കൂടുതൽ വേഗത്തിൽ പാചകം ചെയ്യാൻ വേണ്ടി നമ്മൾ വിറകടുപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ല വിശാലമായ വിറകടുപ്പാണെങ്കിൽ മൂന്നുനാല് പേർക്ക് ഒന്നിച്ച് കൂടി ജോലി ചെയ്യാനും എളുപ്പത്തിൽ ഭക്ഷണം പാചകം ചെയ്യാനും കഴിയും അത് ചോറായാലും പായസമാണെങ്കിലും ഇറച്ചിയാണെങ്കിലൊക്കെ നമുക്ക് കൂടുതൽ ആളുകൾക്ക് ഒരേസമയം അതിൽ വർക്ക് ചെയ്യാനും അതേമാതിരിക്ക് തന്നെ വേഗത്തിൽ ഉണ്ടാക്കാനും കഴിയുന്നതാണ് അങ്ങനെ വിറകടുപ്പാണ് ഏറ്റവും നല്ലത്